പറ ഏട്ടാ പറയ് തെങ്ങിൻ തൈ അല്ലെ ആ അത് എത്ര വേണം സാർക്ക് എത്ര എണ്ണാ നോക്കുന്നു അപ്പം ആ ആ ഇത് ഇപ്പോൾ നമ്മടേല് ഈ കാണണത് ഇത് കാണണത് ആണ് ചന്ദ്രകണ ഇപ്പുറത്ത് ഇതിൻ്റ ഇപ്പുറത്ത് ബ്രദർ പുൾ ആണുട്ടൊ അത് കേരഗംഗ പിന്ന ഇപ്പുറത്ത് ഇള്ളത് ഗംഗാ ബോട്ടം ആപ്പുറത്ത് അത് മറ്റെ ചാവക്കാടൻ കുള്ളൻ ഇത് വന്നിട്ട് കായംകുളം ആ ഓ ഇത് ഇപ്പോൾ ഇതില് ഈ മറ്റെ എന്താ പറയുക കായംകുളം ഈ സംഭവം ഇത് വന്നിട്ട് നമ്മുടെ നാടൻ ആണ് ഇത് ഓ കായ്ക്കാൻ കുറച്ച് സമയം എടുക്കും ഒര് അഞ്ച് വർഷം എടുക്കും പക്ഷെ ഒര് നൂറ് വർഷത്തെ കായ് ബലം കിട്ടും പെട്ടെന്ന് ആണെങ്കിൽ ഇത് ഗംഗാ ബോട്ടം കുഴപ്പം ഇല്ല ഇത് ഹൈറ്റ് ഇത് ഹൈറ്റ് അത്ര വരില്ല കുറച്ച് ഹൈറ്റ് വരുള്ളു പക്ഷെ നല്ല കായ് ഉണ്ടാവും അതുപോലത്തന്നെ ചാവക്കാടൻ കുള്ളൻ ഇത് ഹൈറ്റ് കുറവാണ് അതിൻ്റ ഇപ്പുറത്ത് ഉള്ള ആ ഇപ്പുറത്ത് ഉള്ളത് കണ്ടില്ലെ ആ ആ ഇത് ആ ഇത് ഇത് നല്ല വെറൈറ്റി ആണ് ഇത് ഹൈബ്രിഡ് ആണ് നല്ല വെറൈറ്റി ആണ് ആ ഇത് പതിനെട്ടാം പട്ട ആണ് പതിനെട്ട് പട്ട കഴിഞ്ഞാൽ കായ്ക്കും ഇത് ഒരു ഒന്നര വർഷം രണ്ട് വർഷം ഒക്കെ നല്ല തീറ്റ കൊടുക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കായ്ക്കും ആ അതിലെന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതില് പ അതില് പച്ച ഉണ്ട് വെള്ള ഉണ്ട് അതെന്നെ നമ്മുക്ക് ഇപ്പോൾ ഇത് അത് അതിലെന്നെ പച്ച കളറ് തേങ്ങ ഉള്ള ഉണ്ട് പിന്നെ ചെന്തെങ്ങിൻ്റ കളർ ഉള്ള തേങ്ങ ഉള്ളത് ഉണ്ട് അപ്പം സാർ എങ്ങനെ ആണ് ചെന്തെങ്ങ് ആ അത് കുഴപ്പം ഇല്ല ആ ആ ആ ആ പത്ത് എണ്ണൂറ് വീട് അവർക്ക് എത്ര സ്ഥലം ഉണ്ട് സാർ നിങ്ങൾ എത്ര സ്ഥലം ഉണ്ട് ആറ് ഏഴ് സെൻറ്റ് ആ അപ്പോൾ കുഴപ്പം ഇല്ല ആ ആ ആ ആ അത് അല്ല ഞാൻ ഇത് ആദ്യം കാണിച്ച് തന്നില്ലേ ഇത് ചാവക്കാട് കുള്ളൻ ഇത് ഗംഗാ ബോട്ടം ഇത് കേരഗംഗ ഇത് വന്നിട്ട് കായംകുളം ഇത് ടി ഇൻടു ഡി ആ ഗംഗാ ബോട്ടം മുന്നൂറ്റി അമ്പത് രൂപ വില വരുന്നുണ്ട് ഇതും ഇതും പെട്ടെന്ന് കായ്ക്കും ഇത് ആ ആ ഓ അത് കായ്ക്കും ഈ ഗംഗാ ബോട്ടന്ന് പറയുന്നത് അല്ലെ ഇത് ഈ കാണുന്നതെ ആ മുന്നൂറ്റി അമ്പത് രൂപ

പറമ്പില് നിൽക്കുമ്പോൾ ഒരു ചുരുങ്ങിയത് ഒര് ഏഴ് മീറ്റർ എട്ട് മീറ്റർ എങ്കിലും ഒരു ഇത് വേണം അകലം വേണം ഈ പട്ട ആ അടുത്ത് ഏതെങ്കിലും കുഴി കുഴി നമക്ക് ഒര് ഒന്നര മീറ്റർ ഒന്നര മീറ്റർ അല്ല ഒന്നര അടി രണ്ട് അടി കുഴി എടുത്താൽ മതി കുഴി എടുക്കുക അതില് കുറച്ച് പച്ച ചാണകവും കുറച്ച് ചാരം കുറച്ച് കരീല് വെളിച്ചെണ്ണയിൽ ഒക്കെ ഇട്ടിട്ട് അതില് വയ്ക്കുക കുറച്ച് കുമ്മായം വിതറി കൊടുത്തിട്ട് വെച്ചാൽ മതി ആ തടം തടം ഈ തെങ്ങിന് ചേർന്നിട്ട് എടുക്കാൻ പറ്റില്ല ഒരു ഒര് ഒര് അടിക്ക് കുറച്ച് വിട്ടിട്ട് വേണം തടം എടുക്കാൻ അത് അങ്ങനെ ഒന്നും ഇല്ല നമ്മള് വേനൽക്കാലത്ത് നന്നായിട്ട് വല്ല ട്രിപ്പിന് ശേഷം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അത്രയും നല്ലത് തെങ്ങിന് കവുങ്ങിന് ഒക്കെ നല്ല വെള്ളം വേണ്ട സാധനം ആണ് അപ്പം അതിന് ഇത്തിരി നല്ല നനവ് ഉണ്ടെങ്കിൽ അതെ അതെ അതെ അത് വേര് പിടിക്കുമ്പം അത് വേര് പിടിക്കുന്ന വരെ ഇത്തിരി നനവ് കുറഞ്ഞാലും കുഴപ്പം ഇല്ല വേര് പിടിച്ച് കഴിഞ്ഞാൽ അത് നല്ല നനവ് കൊടുത്താൽ മതി അങ്ങനെ ആണെങ്കിൽ ചേട്ടാ ഇത് എടുത്താൽ മതി ഈ ഗംഗാ ബോട്ടത്തെ എടുത്തോളൂ ആ ആ ഈ കാണുന്നത് എടുത്തോളൂ

ആ അത് വന്നിട്ട് കാസർഗോഡ് കുള്ളൻ ആ ആ ആ ശരി ശരി അത് എടുത്തോളൂ എടുത്തോ അത് വന്നിട്ട് മുന്നൂറ് രൂപ

ആ ആ അത് എടുക്കാം അത് എടുക്കാം ശരി ശരി